ട്രക്കിങ്ങിൽ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ അത് മാനസിക വെല്ലുവിളി ഉയർത്തുന്ന കാര്യമായിരിക്കും ട്രക്കിങ്ങിന് എപ്പോഴും നമുക്ക് സാഹസികത ഉണ്ട് നമ്മൾ അതിൽ ജെമ്പിങ്ങാണ് ഏറ്റവും അപകടകരമായിട്ട് തോന്നുന്നത് ട്രക്കിങ്ങിന് നമ്മൾ റോഡുകൾ ഏറ്റോം മോശമായിരിക്കും പക്ഷേ അതിൻ്റെ മനസ്സ് നമ്മൾ നമ്മൾ മനസ്സ് തന്നെ നേരിടാൻ ധൈര്യപ്പെടുത്തിയാൽ മാത്രമേ നമുക്ക് കമ്പ്ലീറ്റ് ചെയ്യാൻ സാധിക്കുവൊള്ളൂ തീർച്ചയായിട്ടും ശാരീരികം മാനസികമായിട്ട് ഒരു ധൈര്യം നമുക്ക് കിട്ടും ട്രക്കിങ്ങിൽ നമ്മൾ എടുത്ത് ചാടി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക ശരീരം മാനസികമായിട്ട് ഒരു ധൈര്യം ഒരു കരുത്ത് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ശാരീരികമായിട്ട് നമ്മൾ ഫിറ്റായിരിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു ബോധ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ ട്രക്കിങ്ങിന് നമ്മൾ ഇറങ്ങി പുറപ്പെടാൻ തയ്യാറാകേണ്ടത് ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ യുവതലമുറ ഈ കാര്യത്തിൽ ഏറ്റവും പുറകോട്ടായിട്ടാണ് തോന്നുന്നത്